ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഈ ഇടയ്ക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടാരുന്നു ഒരൂ എട്ടായിരം രൂപ ആയി നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്നുതന്നെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചത് അതിപ്പോൾ ഭയങ്കര നഷ്ടമായിപ്പോയി ആ ഫോൺ മേടിച്ചത് ആ ഒരു എട്ടായിരം റുപ്പിയ്ക്കൊക്കെ അതൊരു ഫോർജി മൊബൈൽ ആയിരുന്നു ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു ഫ്രണ്ടിലൊരു മൂന്ന് മെഗാ പിക്സെലും ബാക്കിലൊരു എട്ട് മെഗാ പിക്സെലും ഉണ്ടായിരുന്നുള്ളു അതുപോലെ റാമും ഒരു രണ്ട് ജീബി റാമ് എട്ട് ജീബി റോമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രൈസിലൊക്കെ കുറച്ചുകൂടി നല്ല റേഞ്ചിലുള്ളൊരു സ്മാർട്ട് ഫോൺ കിട്ടുമായിരുന്നു ഒരു നാല് ജീബി റാമിൽ പതിനാറു ജീബി റോമിലുള്ള ഫോണൊക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടും എന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് പിടിച്ചൊരു ഫോൺ മേടിയ്ക്കാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ ഒരു മോശം ഫോൺ നമുക്ക് കിട്ടിയതെന്നെനിക്ക് തോന്നുന്നു എന്തായാലും ഈ ഒരു പ്രൈസിൽ ഈ ഫോൺ ഭയങ്കര നഷ്ടമായി അത് ക്യാമറ ക്ലാരിറ്റി ഒക്കെ ഭയങ്കര കുറവാണ് അതുപോലെ ഫൈജി ഒന്നുമില്ല ഫോർജി ഉള്ളു സ്പീഡ് ഭയങ്കര കുറവ് നെറ്റ്വർക്ക് പിന്നെ എന്നു പറഞ്ഞാൽ ഫോൺ ഹാങ്ങ് ആവുക ഫോട്ടോ എടുക്കുമ്പോളൊക്കെ നല്ല ബ്ലർ ആയി എടുക്കുക ഫോട്ടോ ഒന്നും ക്ലിയർ അല്ല നല്ല ബ്ലറിങ്ങ് ആവുക തീരെ ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസാണ് കിട്ടുന്നത് അങ്ങനൊരുപാട് പ്രശ്നങ്ങൾ ആ ഫോണിനുണ്ടായിരുന്നു